ഉത്തരേന്ത്യൻ ഭഷണങ്ങളൊന്നും ഞങ്ങളുണ്ടാക്കാറില്ല കാരണം ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കണെ അതുകൊണ്ടു കേരളീയ ഭക്ഷണങ്ങളാണ് കൂടുതലുണ്ടാക്കാറ് പിന്നെ പച്ചക്കറി അ ചിക്കനും മീനുമൊക്കെ ഉണ്ടാക്കും എന്നാലും പച്ചക്കറീ ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കാറ് സാധാ ഭക്ഷണങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും അതു തന്നെയാണ് ഇഷ്ടം വല്യമ്മേ മോന് ചിക്കനോടാണ് താത്പര്യം ചിക്കൻ കറി പല വിധം ഉണ്ടാക്കും ചിക്കൻ കറിയായിട്ടും ചിക്കൻ പൊരിയായിട്ടും ചിക്കൻ വരട്ടായിട്ടും എല്ലാതും എല്ലാതും നല്ല അടിപൊളീലുണ്ടാക്കും ഓരൊക്കെ നല്ലഭിപ്രായം പറയും രണ്ടാമത്തെ മോൻ മീൻനോടാണ് താത്പര്യമില്ല അവൻ മീനൊന്നും കഴിക്കാറില്ല അപ്പോൾ പച്ചക്കറിയാണ് കൂടുതലുണ്ടാക്കാറ് ഓന് വേണ്ടിയിട്ട് ഓന് കൂടുതലിഷ്ടം രസമാണ് അതു പിന്നേ അതുണ്ടാക്കും പിന്നെ പപ്പടം അച്ചാറൊക്കെ ഉണ്ടാക്കി വെയ്ക്കും അപ്പോൾ ഓനും അച്ചാറും രസവും പപ്പടമൊക്കെക്കൂട്ടിക്കഴിക്കാനാണ് ഓനിഷ്ടം ചെറിയ മോന് ചിക്കൻ കറീനോടാണ് താത്പര്യം അപ്പോൾ ഓൻ പറയുമ്പോൾ പിന്നേ ഭർത്താവിനാണെങ്കിൽ പിന്നെ കൂടുതലിഷ്ടം ഇലക്കറീനോടാണ് ഇലക്കറി മുട്ട ആമ്പ്ലേറ്റ് ഇതൊക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ ഉണക്ക മീൻ അതു ചിക്കനും ഇഷ്ടമാണ് മീൻ കറി നല്ലിഷ്ടമാണ് മീൻ കറി വെക്കുന്നത് അപ്പം മീൻ മീൻ കൊണ്ടെന്നാൽ ഇപ്പോൾ ഞങ്ങൾ കറി വെയ്ക്കും കറി വെയ്ക്കണം അപ്പം കറിയുണ്ടാക്കും പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കൂട്ടികളുടിഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കും പിന്നെ രാവിലെ കൂടുതലിഷ്ടം കുട്ടികൾക്കിഷ്ടം ദോശയും സാമ്പാറുമാണ് അപ്പം തലേന്നു രാത്രി അരി വെള്ളത്തിലിട്ട് ഉഴുന്നു വെള്ളത്തിലിട്ട് അതൊക്കരച്ചു രാവിലെ ദോശയുണ്ടാക്കും സാമ്പാറും സാമ്പാറൊക്കെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടു സാമ്പാറും ഉണ്ടാക്കും സാമ്പാറും ദോശയും ആണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടം രാവിലെ ഭർത്താവിനിഷ്ടം പുട്ടിന് പുട്ടാണ് അപ്പോൾ പു ഭർത്താവിൻറ്റിഷ്ടത്തിനു പുട്ടുണ്ടാക്കും കുട്ടികൾ പറയും പോലെ ഇതൊക്കെ ഇഷ്ടമുള്ളത് ഭക്ഷണം പറയണനനുസരിച്ച് രാവിലെ ഉണ്ടാക്കും ഉച്ചക്കും അങ്ങനെതന്നെ നാലു മണിക്കു ചെറുതായിട്ടെന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ അതുണ്ടാക്കും പിന്നെ രാത്രി കൂടുതൽ ചോറാണെല്ലാവരും എല്ലാവരും ചോറു തന്നെയാണ് രാത്രി കഴിക്കൽ അപ്പോൾ രാത്രി ചോറുണ്ടാക്കും അന് മീൻകറി ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കും പിന്നെ ഇടക്കൊക്കെ ബിരിയാണി വെയ്ക്കും ചിക്കൻ ബിരിയാണി വെക്കും ചില ചിലപ്പോഴൊക്കെ നെയ്ച്ചോറ് ചിക്കൻ്റെ കറി കുട്ടികൾക്കു ചിക്കൻ്റെ കറി നെയ്ച്ചോറ് പപ്പടം തൈര് അതൊക്കെ കൂടുതലിഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കും ചില ദിവസങ്ങളിൽ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് ഓലിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കും എനിക്കും കൂടുതലിഷ്ടം പച്ചക്കറി ചിക്കനും ഇഷ്ടമാണ് എന്നാലും പച്ചക്കറിയൊക്കെയാണ് കൂടുതലും ഇഷ്ടം പിന്നെ എന്താ മീൻ കറി ഇഷ്ടമാണ് അപ്പം മീൻ കറി ഉണ്ടാക്കും മീൻ വറുത്തത് അങ്ങനെ അതുമുണ്ടാക്കും അല്ലാത്ത സമയങ്ങളിൽ പിന്നെ കൂന്തൾ കൂന്തൾ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതു കൊണ്ടവരും അതും നല്ലവണ്ണം മുറിച്ചു കഴുകി പിന്നെ നല്ലവണ്ണം റോസ്റ്റാക്കിയിട്ട് അതുമുണ്ടാക്കും കൂന്തൾ മീൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ വത്തൽ മീൻ അതുമിഷ്ടമാണ് പിന്നെ അങ്ങനെ പലതും മാറ്റി മാറ്റി ഉണ്ടാക്കും അങ്ങനെ എന്താ പറന്നേനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കും പിന്നെ പുട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പം ചപ്പാത്തിയുണ്ടാക്കും ചിക്കൻ കറി ചിക്കൻ കൊണ്ടു വരുമ്പം ചിലപ്പം ചപ്പാത്തിയുണ്ടാക്കും ചപ്പാത്തിയും ചിക്കൻ കറിയും അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ രാത്രി അപ്പം ചപ്പാത്തിയും ചിക്കനുമൊക്കെ ആക്കും പിന്നെ ഉണ്ണിയപ്പത്തിനോടു കൂടുതലിഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ രാത്രി ഒക്കേ ചിക്കൻ കറി ചിക്കൻ കൊണ്ടു വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ണിയപ്പം ശർക്കരയും അരി വെള്ളത്തിലിട്ട് ശർക്കരയും പഴമൊക്കെ കൂട്ടിയിട്ട് പിന്നെ അരച്ച മാവ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പമുണ്ടാക്കും അപ്പായിക്ക് ചിക്കൻ കറിയൊക്കെയിട്ടു വെയ്ക്കും കുറച്ചു കുറച്ചു ഗ്രേവിയിൽ അങ്ങനെ വെയ്ക്കും ചിക്കൻ കറി അപ്പം കുട്ടികൾക്കൊക്കെ അതു നല്ലിഷ്ടമാണ് അപ്പം ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയുണ്ടാക്കും കുട്ടികൾ പറയുന്നതിനനുസരിച്ച് അങ്ങനെയുണ്ടാക്കും പിന്നേ എന്താ എന്താ ഇപ്പോൾ പിന്നേ ചില ദിവസങ്ങളിൽ എന്താ സാദാച്ചോറ് തേങ്ങാച്ചോറും കുട്ടികൾക്കു നല്ലിഷ്ടമാണ് അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടു വരുമ്പോൾ തേങ്ങാച്ചോറും ചിക്കൻ്റെ കറി ചിക്കൻ കറി കുറച്ചു ലൂസാക്കിയിട്ടു ചിക്കൻ കറി തേങ്ങാച്ചോറും പപ്പടവും തൈരും അതും കുട്ടികൾക്കു നല്ലിഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ അതുണ്ടാക്കും അങ്ങനെ മാറ്റി മാറ്റി പലയിതും ഉണ്ടാക്കും പച്ചക്കാറി ആയാലും ഒക്കെ അങ്ങനെ തന്നെ മാറ്റി മാറ്റി പലേ കറികളും ഇളയ മോന് മത്തൻ്റെ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചില ദിവസം മത്തൻ കറിയുണ്ടാക്കും അങ്ങനെ